ഞാൻ സാധാരണ മൽസ്യബന്ധനമൊക്കെ ചെയ്തിട്ടുണ്ടോന്ന് ചോദിച്ചാൽ കൂടുതലായിട്ടും ഞാൻ ചെയ്തുവരുന്നത് എൻ്റെ വീടിൻ്റെ ആ പരിസരത്തുള്ള തൊടുകളിലൊക്കെയായിരുന്നു ഞാൻ ആദ്യമായിട്ട് മൽസ്യബന്ധനത്തിന് പോയത് കാരണം തോർത്തുപയോഗിച്ചിട്ട് അവിടുന്ന് ഈ തോടുകളിൽ കൈതോടുകളിൽ നിന്നൊക്കെ വരുന്ന മീനുകളെ കോരിപ്പിടിച്ചാണ് ഞാൻ ആദ്യമായിട്ട് മൽസ്യബന്ധനമൊക്കെ ചെയ്തുതുടങ്ങിയത് പിന്നെ എന്താ പറയാ വളരെ വരെ വരെ വലിയ വലിയ മൽസ്യത്തിനെയൊക്കെ പിടിക്കാനൊക്കെ തുടങ്ങിയത് കാരണം അപ്പുറത്തുള്ള പുഴകളിലൊക്കെ പോയിട്ട് ചൂണ്ടയിട്ടും അങ്ങനെയൊക്കെ വലിയ വലിയ മീനുകളെ പിടിക്കാൻ ഞാൻ പിന്നെ തുടങ്ങി അപ്പോൾ ഒക്കെ എനിക്ക് എന്താ പറയാ മൽസ്യബന്ധനത്തിനോടൊക്കെ വലിയ താല്പര്യമായിരുന്നു പിന്നെ ഒരു മീഡിയം ലെവല് എന്താ പറയാ ഒരു വലിയ വലിയ മീനുകളെയൊക്കെ കിട്ടി തുടങ്ങിയതിന് ശേഷമാണ് എന്താ പറയാ മൽസ്യബന്ധനത്തിൻറെ ഒരു ഹരം നമുക്ക് മനസ്സിലാവുന്നത് പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഈ കുഞ്ഞുമീനുകളെയൊക്കെ പിടിച്ച് നടക്കുക എന്നല്ലാണ്ട് നമുക്കിതിനെപ്പറ്റി വലിയ ഫാന്റസി അങ്ങനെ ഒന്നുമില്ലായിരുന്നു പിന്നെ വരെ വരെയാണ് നമുക്കിതിനെപ്പറ്റി വലിയ കാര്യമായിട്ടൊക്കെ മനസ്സിലായി തുടങ്ങിയത് കാരണം ഇങ്ങനെ ചെയ്തുകഴിഞ്ഞാൽ വലിയ മീനിനെ കിട്ടും എന്നൊക്കെ അറിഞ്ഞേപ്പിന്നെ നമ്മൾ ചൂണ്ടയൊക്കെ ഉപയോഗിച്ച് പുറത്തൊക്കെ പോയി വലിയ വലിയ മീനുകളെയൊക്കെ പിടിക്കാൻ തുടങ്ങി പിന്നെ എന്താ പറയാ മുതിർന്ന ആൾക്കാർ അവിടെ പോയിട്ട് എന്താ പറയാ വലിയ വലിയ ആൾക്കാരെന്നൊക്കെ പറയുമ്പോൾ അവർക്ക് പുതിയ പുതിയ രീതികളൊക്കെ കണ്ട് പിടിക്കാനും അവർ വലിയ വലിയ എന്താ പറയാ വലിയ ചൂണ്ട അങ്ങനെയൊക്കെ ഉപയോഗിച്ച് മീനുകളെ പിടിക്കുന്നതൊക്കെ കണ്ടുപഠിച്ചിട്ടാണ് നമ്മളും അതുപോലെ ചെയ്യാൻ തുടങ്ങിയത് അങ്ങനെ വലിയ വലിയ മീനുകളെയൊക്കെ പിടിക്കാൻ ഞാനും തുടങ്ങിയിരുന്നു അങ്ങനെ മൽസ്യബന്ധനം ഒക്കെ നമ്മൾ തുടങ്ങിയിരുന്നു